ഹലോ എനിക്ക് ഒരു നാടകത്തില് പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുവാന്നു വെച്ച് എങ്ങനെയുണ്ട് ഞാൻ അഭിനയിക്കുന്നതിൽ കുറവുണ്ടോ ഇല്ലേ ആ എനിക്ക് താല്പ്പര്യമുണ്ട് അത് എന്നോട് പലപ്രാവശ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുവാണ് അതുകൊണ്ട് നിന്നോട് കൂടി പറഞ്ഞിട്ട് ഒരു തീരുമാനമെടുക്കാവല്ലോന്ന് വിചാരിച്ചു ആ അന്നേരം അഭിനയിക്കാമല്ലോ അല്ലേ ആ എന്നാല് ശരി ഓക്കെ ഞാന് അഭിനയിച്ചിരിക്കും നല്ലതായിട്ട് അഭിനയിക്കണം എന്ന് നീയും പ്രാര്ത്ഥിക്കണം